കോവിഡ് നയൻ്റീൻ കോവിഡ് നയൻ്റീൻ എന്നു വച്ചാൽ നമുക്ക് ഈ മറ്റേ വിനോദ യാത്രകൾക്കൊന്നും പോവത്തില്ല മാസ്ക്ക് വെക്കാതെ പുറത്തിറങ്ങാൻ ഒക്കത്തില്ല പിന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനത്തെ കുറച്ച് പാടുള്ള പരിപടിയാണ് ഈ കോവിഡ് നയൻ്റീൻ രോഗത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കോവിഡ് നയൻ്റീൻ എന്നു വച്ചാൽ നമുക്ക് ഈ മറ്റേ മെയിനായിട്ട് നമുക്ക് മാസ്ക്ക് വെക്കാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം നമുക്ക് വിനോദ യാത്രകൾ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല പിന്നെയതിന് ശേഷം നമുക്കൊരു കടയിൽ പോകാൻ ഒക്കത്തില്ല പിന്നെ എല്ലാ ഇടത്തും ലോക്ക്ഡൗണും കാര്യങ്ങളും പിന്നെ നമ്മൾ വീട്ടിനകത്ത് അടച്ച് മൂടി ഇരിക്കുന്ന പരിപാടിയാണ് ഈ മറ്റേ കോവിഡ് നയൻ്റീൻ വന്നപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ കോവിഡ് നയൻ്റീൻ വന്നപ്പോൾ കഷ്ടകാലമാണ് നമുക്ക് സ്കൂളിൽ പോകാൻ ഒക്കില്ല പിന്നെ നമുക്ക് പിന്ന നല്ല നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ പോവാൻ ഒക്കില്ല നമുക്ക് പിന്നെ നമുക്ക് പിന്നെ വിനോദ യാത്രകൾ സഞ്ചരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് ഈ മറ്റേ ഇതിനകത്തുള്ളത്